ഗ്രാമപ്രദേശങ്ങളിലെ സർക്കാർ ഭരണങ്ങൾ നഗര പ്രദേശങ്ങളുടേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഗ്രാമപ്രദേശങ്ങളിൽ കുറച്ച് ആളുകൾ കുടിചേർന്ന് ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നതോട് കൂടിത്തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ ആ ഭരണാധികാരിക്ക് സാധിക്കും മാത്രമല്ല ഒരു ഗ്രാമത്തിൽ ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് പരിചയമുള്ള ഒരാളെയായിരിക്കും അവർ തിരഞ്ഞെടുക്കുക അതുകൊണ്ടുതന്നെ തൻ്റെ കീഴിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആ ഭരണാധികാരിക്ക് സാധിക്കും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ മോശമായ പൊതുസേവനങ്ങൾ അവിടെ ഉണ്ടാവുന്നില്ല പരിസ്ഥിതി തകർച്ച അവർക്ക് ഒരു പ്രശ്നമായിരിക്കും പരിസ്ഥിതിക്ക് മോശമായിട്ടുള്ള ഒരു വികസനങ്ങളും ഗ്രാമത്തിൽ കൊണ്ടുവരാൻ നാട്ടുകാരോ അല്ലെങ്കിൽ ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നല്ല ഭരണാധികാരിയോ തയ്യാറാവില്ല ആരോഗ്യകരമായ അസമത്വങ്ങളൊന്നും ഗ്രാമത്തിൽ ഉണ്ടാവില്ല ഗ്രാമത്തിൽ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ സഹായിക്കാൻ ഇത്തരത്തിലുള്ള ചെറുകിട ഭരണാധികാരികളും നാട്ടുകാരും ഏറെ പരിശ്രമിക്കും ഒരു ചെറിയ ഗ്രാമപ്രദേശമായത് കൊണ്ട്തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ കുറ്റകൃത്യങ്ങളും സാമൂഹിക അശാന്തിയും കുറവായിരിക്കും അത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ നടക്കാൻ നാട്ടുകാർ ഒരിക്കലും അനുവദിക്കില്ല സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആളുകളെ നേരിടാൻ ഇത്തരത്തിലുള്ള ഭരണാധികാരികളും നാട്ടുകാരും എന്നും ഒന്നിച്ച് നിൽക്കും ഒരിക്കലും ഇത്തരം ഗ്രാമപ്രദേശങ്ങളില് പാർശ പാർശ്വവൽക്കരണം ഉണ്ടാവാറില്ല എല്ലാ ജനങ്ങൾക്കും ഒരേ അളവിൽ ആവശ്യങ്ങൾ നടപ്പാക്കി കൊടുക്കാനും സേവനങ്ങൾ ലഭ്യമാക്കാനും ഭരണാധികാരികൾ ശ്രമിക്കാറുണ്ട് ഇതിൽനിന്നൊക്കെ ചില സമയങ്ങളിൽ നഗരപ്രദേശങ്ങളിലെ ഭരണം തികച്ചും വ്യത്യസ്തമാണ് ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാനും എല്ലാവരുടെയും ടേയും ആവശ്യങ്ങൾ നടത്തികൊടുക്കാനും പലർക്കും സാധിക്കാറില്ല നഗരപ്രദേശങ്ങളിലാണ് ഗ്രാമങ്ങളെക്കാൾ കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടന്നു വരുന്നത് ഇത്തരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ രണ്ട് ഭരണങ്ങളും തമ്മിൽ ഉണ്ട്